എനിക്ക് ആക്റ്റീവേ ഉണ്ട് ഞാൻ ബൈക്ക് ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് സോ ബൈക്ക് ഞാൻ എപ്പോഴും ഓടിക്കുന്നത് ഒരു ലോങ്ങ് ജേർണിക്ക് വേണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത് ഒരു കൂടുതൽ ദൂരം യാത്ര വരുമ്പം ബൈക്ക് ആണ് ഉപയോഗിക്കുന്നത് കാരണം ഓയിൽ അല്ലെങ്കിൽ പെട്രോള് നമുക്ക് അതിൽ കുറച്ച് ഒരു ഇത്ര ഡിസ്റ്റൻസ് കവറ് ചെയ്യുമ്പോൾ ഇത്രയും രൂപയ്ക്ക് നമുക്ക് അത് കവർ അപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ കാർ എടുക്കാതെ ഞാൻ ബൈക്ക് യാത്ര ചെയ്യുന്നത് ഇപ്പം ബൈക്ക് യാത്ര ഞാൻ ഇപ്പം ലോങ്ങ് ജേർണി പോകുവാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ തലേദിവസം ബൈക്കിൻ്റെ എല്ലാ പാർട്ട്സും എല്ലാം സേഫ് ആണോന്ന് ഞാൻ നോക്കും എല്ലാ പാർട്ട്സും വർക്കിംഗ് ആണോന്നും ഞാൻ നോക്കും എന്തെങ്കിലും ഡാമേജോ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടോന്ന് ഞാൻ നോക്കും അതുണ്ടെങ്കിൽ ഞാൻ അത് കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഓട്ടോ മൊബൈൽൻ സർവീസ് കൂടെ ഞാൻ കൊണ്ട് കൊടുത്ത് അതൊന്ന് ജെസ്റ്റ ഒന്ന് ഫങ്ഷണൽ ചെയ്തിട്ട് ഞാൻ അത് സ്റ്റാട്ട് പിറ്റേ ദിവസത്തേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളു അപ്പം അത് ഞാൻ ചെയ്യുമ്പം ഇപ്പം എൻ്റെ കൂടെ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ട് പേരും ഹെൽമറ്റും മസ്റ്റ ആയിട്ട് ധരിച്ചിരിക്കും അത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് രണ്ടാമത്തത് പെഡസ്ട്രിയൻ റൂൾസ് പിന്നെ ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്തിട്ടായിരിക്കും ഞാൻ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ പുറകിലിരിക്കുന്ന ആൾക്ക് ആളോടും ഞാൻ അതിനെപ്പറ്റി പറഞ്ഞ് കൊടുക്കും അങ്ങനെയാണ് പോകുന്നത് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പം രണ്ട് യാത്ര പുറകിൽ ഒരാൾ ഉണ്ടായത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഈ ഓടിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും അപ്പം ഈ റോഡ് റൂൾസിന് എതിരായിട്ട് വരരുത് അല്ലെങ്കിൽ ട്രാഫിക് റൂൾസിന് എതിരായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ മിസ് ബിഹേവ് ചെയ്യാൻ പാടില്ല ഇപ്പം നമ്മൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ഷൂട്ടിന് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുള്ള ഒരിതിൽ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം നമ്മുടെ വീഡിയോനെക്കാട്ടിലും പ്രാധാന്യം നമ്മുടെ ലൈഫ് ആണ് സോ ഇങ്ങനെ ടു വീലറിലൊക്കെ യാത്ര പോകുമ്പം ലൈഫ് ഒരുപാട് ഇതുണ്ട് ഡേഞ്ചർ സീ ഇതുണ്ട് സൈൻസ് ഉണ്ട് അത് നമ്മൾ ഇത് വെക്കണം കാരണം ഫോർ വീലറിൽ യാത്ര ചെയ്യുമ്പോൾ കാറിൽ അങ്ങനുള്ള സംഭവങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എയർ ബാഗ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് പക്ഷേ അതേ സമയം നമ്മൾ ഒരു ടു വീലറിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവങ്ങൾ ഇല്ല ഇത് എല്ലാം മുന്നിൽ ഇരിക്കുന്ന വ്യക്തി ഓടിക്കുന്ന മാതിരിയാണ് ഇരിക്കുന്നത് അപ്പം നല്ല സ്ട്രോങ് ആയിട്ടും കമ്മ്യൂണിക്കേബിൾ ആയിട്ടും ഇരിക്കുക പിന്നെ ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യുക പിന്നെ എല്ലാ സിഗ്നൽസും ട്രാഫിക്കിൻ്റെ ആണെങ്കിൽ പോലും എല്ലാം ഹെഞ്ച് റോഡ് അല്ലെങ്കിലും ടേണ് യൂ ടേണ് വി ട്ടേൺ അങ്ങനെയുള്ള എല്ലാ സിഗ്നൽസും നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ ലോങ്ങ് ജേണി യാത്രയ്ക്ക് പോകാൻ പിന്നെ രാത്രി കാലങ്ങളാണിപ്പം നമ്മൾ ഓടിച്ചോണ്ടിരിക്കണം ഇരിക്കുന്നെങ്കിൽ ലൈറ്റിൻ്റെ ബൈസൈക്കിളിൻ്റെ അല്ലെങ്കിൽ ബൈസൈക്കിളിൻ്റെ മുന്നിലത്തെ ലൈറ്റ് അത് മിനിമം അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണെന്നുള്ള യൂസ് ചെയ്യേണ്ടത് ആ രീതിയിൽ വേണം അത് യൂസ് ചെയ്യാനും അതായത് പേടിക്കുക എന്നുള്ള ആ സ്ഥലം സ്ഥലങ്ങളിലാണെങ്കിൽ എസ് പിൻ മാതിരിയുള്ള സംഭവങ്ങളാണ് അപ്പം അവിടെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഏത് ലൈൻ കൂടെയാണ് പോകേണ്ടത് എവിടെ കൂടെയാണ് വണ്ടി വരുന്നത് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചും കണ്ടുമായിരിക്കും നിങ്ങൾ ഉപയോഗിക്കേണ്ടത്